എന്നോടു ഇപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യം എനിക്കിഷ്ടപ്പെട്ട മാസിക അല്ലെങ്കിൽ ബ്ലോഗ് ഏതാണ് അതിനു കാര്യം കാരണമെന്താണ് എന്നാണ് ഞാനീയിടെയായി വായിച്ച ഒരു ബ്ലോഗാണ് സ്പെഷൽ ഗിഫ്റ്റ് തിയേറ്റർ എന്നു പറയുന്നത് അതായത് കുട്ടികൾക്കു വേണ്ടിയുള്ള ഒരു തിയേറ്റർ ആർ ആർട്ടിനെപ്പറ്റി പറയുന്ന ഒരു ബ്ലോഗാണ് സ്പെഷൽ ഗിഫ്റ്റ് തിയേറ്റർ ബ്ലോഗെന്നു പറയുന്നത് അവിടെ ഇരുവതിലേറെ കുട്ടികളുണ്ട് അതുപോലെതന്നെ ഏകദേശം മുപ്പതിലധികം സ്റ്റാഫ് മെമ്പേഴ്സും ഉണ്ട് അവിടുത്തെ കുട്ടികൾക്കു വേണ്ടി അവരെ പഠിപ്പിക്കാനും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓരോ കുട്ടികൾക്കും വേണ്ട വ്യത്യസ്തമായ ആവശ്യങ്ങളെന്താണ് എന്നു മനസ്സിലാക്കി അവരുടെ അച്ഛനമ്മമാരെ അതു പറഞ്ഞു പഠിപ്പിച്ച് അതെങ്ങനെ അവർക്ക് അവരെ അവരുടെ ജീവിതത്തിൽ മുന്നേ മുന്നേറ്റാം എന്ന് സഹായിക്കുന്ന ഒരു ബ്ലോഗാണ് ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് തിയേറ്ററെന്നു പറയുന്നത് ഇവിടെ കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്കു പുതിയ വഴി വഴികൾ കാണിച്ചു കൊടുക്കുകയും ഇപ്പോൾ പ്രത്യേകമായ പരിചരണവും കാര്യങ്ങളും വേണ്ട കുട്ടികളെ മനസ്സിലാക്കി അവർക്കു വേണ്ടി സഹായ സഹായങ്ങളെത്തിച്ചു കൊടുക്കാനുമൊക്കെ ഇവർ ഇവർ ചെയ്യാറുണ്ട് ഈ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ കോളേജിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അങ്ങനെ ഉള്ളവരൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കുട്ടികൾക്കും വേണ്ട റിസോഴ്സസ് കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ജീവിതരീതിയും അവർ നമ്മളോട് പെരുമാറുന്ന രീതിയും ഒക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാനീ ബ്ലോഗ് വായിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ സോഷ്യൽ സർവ്വീസ് ഇഷ്ടം ഇഷ്ടമാണ് എന്നൊരു ഇഷ്ടമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കു തോന്നുന്നു കുട്ടികളുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബ്ലോഗ് വഴി ആയിരിക്കും എന്നു ഞാൻ കരുതുന്നു ഇപ്പം നമുക്ക് ഓരോ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുഞ്ഞു കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ അവരിൽ നിന്ന് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയും എന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ ബ്ലോഗിലേക്കു വേണ്ട ഇനിയും ഇതുപോലെ ഇങ്ങനത്തെ കുട്ടികൾക്കു ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളെപ്പറ്റി എഴുതാനും അതു മറ്റുള്ളവരിലേക്കെത്തിക്കാനും കഴിവുള്ള ആളുകൾ ഉണ്ടാ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ഇതിലേക്ക് ക്ഷണിച്ചുകൊ ക്ഷണിക്കുന്നു ഇതൊക്കെക്കൊണ്ടാണ് എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് തിയേറ്ററെന്ന ബ്ലോഗ് ഇഷ്ടമാണെന്ന് ഞാൻ പറയാൻ കാരണം